ഹലോ ഹാ ആ ഹീറ്റർ ആണ് അപ്പം നമക്കാണെങ്കി നിങ്ങള് തരുന്ന വെജിറ്റബിൾസ് കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെയ്ക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങളെന്തെങ്കിലും കീടനാശിനികളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ കാരണം നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ തരുന്ന നല്ല ഓർഗാനിക്ക് ആയിട്ടുള്ള കാര്യമാണ് വെജിറ്റബിൾസ് ആണ് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതൽ നേരം വറ്റിക്കാനായിട്ട് പറ്റുന്നില്ല ആ ഓക്കെ സാർ ഈ ഗ്യാരേജിലാന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുംകൂടെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ കാരണം ഫ്രിഡ്ജ് അതുപോലെ ഉള്ള ഇതാണോ സാർ ഉദ്ദേശിക്കുന്നത് ആ സാർ അത് ശരിയാണ് പക്ഷെ നമ്മുടെ ഷോപ്പ് വളരെ ചെറുതാണ് അപ്പം ഇനി ഒരു ഗ്യാരേജ് കൊണ്ട് അവിടെ പണിത് വയ്ക്കുവാനോ അല്ലെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാനോ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം സാറ് നമുക്ക് തരുന്ന ക്വാണ്ടിറ്റീടെ പകുതി തന്നിരുന്നു എങ്കിൽ നമുക്ക് അവിടെ ക്വാളിറ്റിയോടെ അന്നന്ന് തന്നെ സെയില് ചെയ്യാമായിരുന്നു സോ സാറ് പുതിയൊരു ഷോപ്പുംകൂടെ കണ്ടെത്തോ സാറിൻ്റെ ഇത് വെജിറ്റബിൾസ് വിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും നാള് സ്റ്റോറ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് പറയുവ ആ അതെ സാർ സാറിൻ്റെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളത അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ല വിൽപ്പനയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സാർ നമുക്ക് ഒരിക്കലും വേണ്ട എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ സാർന് തന്നെ അറിയാമല്ലോ ഓർഗാനിക് പ്രൊഡക്റ്റ്സിനൊക്കെ ഇപ്പോൾ നല്ല വിലയുള്ള കാലമാ ആ ഓക്കെ സാർ ആ ആ ശരി സാർ അപ്പം ആ ഓക്കെ സാർ വെയ്ക്കും താങ്ക് യു ഓക്കെ